ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തെഞ്ഞെടുക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് കോഴ്സ് കാരണം നേഴ്സിങ്ങിന് എവിടെ ആശുപത്രിയിൽ കയറിയാൽ എപ്പം വേണമെങ്കിലും ജോലി കിട്ടും കാരണം നേഴ്സിങ്ങിന് ക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് രോഗികള് ഏറ്റവും കൂടുതല് രോഗികളുണ്ടാവും കാരണം എല്ലാ സ്ഥലങ്ങളിലും രോഗികളാണ് അപ്പം നേഴ്സിന് മറ്റു കോഴ്സുകളെ അപേക്ഷിച്ച് നേഴ്സ് നേഴ്സ് ആകണം എന്ന് എല്ലാ രീതിയില് കാരണം നഴ്സിംഗ് ആകുമ്പം ഏതൊരു ആശുപത്രില് പോയാലും നമുക്ക് ഒരു ജോലി കിട്ടും മറ്റു കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻജിനീയർ ആയിട്ടുണ്ടെങ്കില് കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു അധ്യാപകനാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് പിന്നെ അ എന്തൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നഴ്സിംഗ് ജോലി കിട്ടാൻ നമുക്ക് ആ കോഴ്സുകൾ തെരഞ്ഞെടുത്ത് നമുക്ക് കൃത്യമായി ഏതെങ്കിലും ഒരു ആശുത്രി കയറുവാണെങ്കിൽ നമുക്കത് അയ് ഒരു ഒരു മിതമായ ഒരു ശമ്പളത്തോൂടു കൂടി നമുക്ക് ജോലി ചെയ്യാൻ കഴിയും മറ്റു കോഴ്സുകൾ പഠിച്ച് നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന് അപേക്ഷകളും വെച്ച് ഇങ്ങനെ കാത്തിരുന്നാലും നമുക്ക് ജോലി ലഭിക്കില്ല ഈ നഴ്സിംഗ് കോഴ്സ് എന്ന് പറഞ്ഞെങ്കില് എവിടെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കില് ഓടി പോയി അവിടെ കയറിയാൽ നമുക്ക് ജോലിയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വിദ്യാർത്ഥികൾ എല്ലായിടത്തും വിദ്യാർത്ഥികളും പഠിച്ചു കഴിഞ്ഞപാട് നേഴ്സിങ്ങിന് പോകുന്നതും നേഴ്സിങ് എടുത്ത് പഠിക്കുന്നതും ഇത് കാരണമാണ് കാരണം